ഞാൻ ഈ അടുത്ത് പോയത് മൂന്നാറിലേക്കൊരു യാത്ര ആയിരുന്നു ഞങ്ങൾ വളരെ നല്ലൊരു യാത്ര ആയിരുന്നു അത് കാരണം ഞങ്ങൾ രാവിലെ പള്ളിയിൽ നിന്നാണ് ഞങ്ങൾ പോയത് അപ്പോൾ രാവിലെ ഞങ്ങൾ പോയപ്പോഴത്തേക്കും അഞ്ച് മണിയോടെ അടുത്തു ഇവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അഞ്ച് മണി കഴിഞ്ഞു ഞങ്ങൾ വണ്ടിയിൽ കയറി വണ്ടിയിൽ നിന്നിട്ട് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു നല്ല തണുപ്പ് നല്ല രാവിലെ ഈ യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പ്രകൃതി ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റി ആരും ഉണരാത്ത ഒരു സമയമാണല്ലോ അപ്പോൾ ഭയങ്കര നിശബ്ദം ആയിരിക്കും നമ്മുടെ പ്രകൃതി ആ സമയത്ത് യാത്ര ചെയ്യുന്നത് വളരെ ജീവിതത്തിൽ എ ആ എപ്പഴെങ്കിലും ആസ്വദിക്കേണ്ട ഒരു കാര്യമാണ് ഈ രാവിലെ എഴുന്നേറ്റ് യാത്ര ചെയ്യുക എന്നുള്ളത് ആ സമയത്ത് ഞാനും എൻ്റെ കുറേ കൂട്ടുകാരും സുഹൃത്തുക്കളോടൊത്ത് പോവുമ്പോഴാണ് എപ്പോഴും യാത്രകൾ മനോ മനോഹരമാവുന്നത് അപ്പോൾ ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു ആ യാത്രയിൽ നമ്മൾ രാവിലെ ഇവിടുന്ന് പുറപ്പെട്ടു ഏകദേശം അഞ്ച് മണിയായപ്പോൾ ഇവിടുന്ന് യാത്ര തിരിച്ചു അത് കഴി അതിനുശേഷം ഞങ്ങൾ നേരെ ഒരു റോഡിലൂ റോഡിലൂടെ ഒക്കെ യാത്ര ചെയ്തു എല്ലാവരും ബസ്സിൽ എല്ലാവരും ഉറക്കമായിരുന്നു കേട്ടോ കാരണം ഈ വെളുപ്പിനെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ക്ഷീണവും ഉറക്കപിച്ചിലായതുകൊണ്ട് എല്ലാവരും കിടന്നുറങ്ങി ഉറങ്ങി ഒരു എട്ട് മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ സ്ഥലത്തെത്തി അതായത് ഞങ്ങൾ പാമ്പനാർ ആ സ്ഥലത്ത് എത്തിയിരുന്നു അപ്പോൾ പ്രഭാത ഭക്ഷണത്തിനായിട്ട് എല്ലാവരും അവിടെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണത്തിനു പോയി അപ്പം അവിടുന്ന് ഞങ്ങൾ കഴിച്ചത് വെളുപ്പിന് രാവിലെ തന്നെ എന്തെങ്കിലും വയറ്റിൽ കിടക്കുന്ന ഒരു സാധനം കഴിക്കണമല്ലോ എന്ന് കരുതി പൊറോട്ടയും കഴിച്ചു കാരണം പൊറോട്ട കഴിക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ആ ദിവസം പിന്നെ ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കാരണം അത്രയ്ക്കൊരു സന്തോഷം അത്രയ്ക്കൊരു വയറിന് ഒരു ഇത് നമുക്ക് കിട്ടും അപ്പോൾ പൊറോട്ടയും ബീഫും കഴിച്ചു വളരെ നല്ലതായിരുന്നു കേട്ടോ നല്ല ഫുഡ് ആയിരുന്നു അത് തന്നെ നിങ്ങൾ അവിടുന്ന് പുറപ്പെട്ടിട്ട് നേരെ മൂന്നാർ ചെന്നു മൂന്നാർ എത്തി നിങ്ങൾ ജീവിതത്തിൽ ഒരു വട്ടം എങ്കിലും പോകേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ മൂന്നാർ അതും നല്ല തണുപ്പ് സമയത്ത് പോവണം കോടമഞ്ഞൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ എന്ത് നല്ല രസം ആണെന്ന് അറിയുമോ നമ്മുടെ നമുക്ക് നമ്മൾ ഒരു നിമിഷം മറന്നുപോവും നമ്മൾ എത്ര വലുത് ആയിരുന്നു എന്ന് ചിന്തിക്കും നമ്മൾ ഒരു കൊച്ചു കുട്ടി ആയിരുന്നെങ്കിൽ ചിന്തിക്കും അങ്ങനെ നമ്മൾ വളരെ തണുപ്പും ആ സമയത്ത് കൂട്ടുകാർ പാട്ട് നൃത്തം പിന്നെ കിളികൾ നല്ല അവിടെ കുറേ തേയില തോട്ടങ്ങൾ ഉണ്ട് ഞങ്ങൾ തേയില തോട്ടത്തിൻറെ നടുക്ക് കൂടെ നടന്നായിരുന്നു അവിടെ കുറേ തോട്ടപ്പുഴ ഒക്കെയുണ്ട് തേയില തോട്ടത്തിനകത്ത് പിന്നെ തേയില ഇങ്ങനെ കിളിർത്ത് വരുന്നത് ഉണ്ടായിരുന്നു അത് പറിച്ചെടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഞങ്ങൾ അവിടുത്തെ തോട്ടം മുതലാളികൾ വഴക്ക് പറയുന്നതുകൊണ്ട് ഞങ്ങൾ പറിച്ചെടുക്കാൻ പോയില്ല പിന്നെ ഞങ്ങൾ തേയില തേയില അവിടെ തേയില ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു തേയില വിൽക്കണം എന്നുണ്ടായിരുന്നു അവിടെ കുറേ എന്താണ് പറയുക തണുപ്പ് മൂ മൂടലല്ല കോടമഞ്ഞ് വന്നിട്ട് ഇങ്ങനെ കോട വരുക എന്ന് പറഞ്ഞിട്ട് തണുപ്പത്ത് നമുക്ക് ചുറ്റുമുള്ള ആരെയും കാണത്തില്ല അങ്ങനെ നമ്മൾ തണുപ്പത്ത് നടക്കുകയായിരുന്നു പിന്നെ നമ്മൾ ആണെങ്കിൽ കാറ്റത്ത് ഇങ്ങനെ കാറ്റും കാറ്റ് അടിക്കുമ്പോഴാണ് ഏറ്റവും സുഖം നമുക്ക് തണുത്ത കാറ്റ് വീശുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് തണുത്തിട്ട് കൊ നമുക്ക് വിറയ്ക്കും നിന്ന് അങ്ങനെ മൂന്നാർ പോവുവാണെങ്കിൽ മ നല്ല തണുപ്പ് വേണം പിന്നെ എന്താണ് പറയുക മൂന്നാർ കുറേ എന്തുവാ റോ റോഡ് നല്ല റോഡ് ആണ് കേട്ടോ ആ റോഡിൽ കൂടെ പോകുമ്പോഴുള്ള കാഴ്ച കണ്ടാൽ തന്നെ നമുക്ക് എന്തൊരു സന്തോഷം ആകും എന്നറിയാമോ നല്ല രണ്ട് വശങ്ങളിലും നല്ല തേയിലകൾ തേയിലത്തോട്ടം നമ്മൾ അതിൻ്റെ നടുക്ക് കൂടെ ഇങ്ങനെ നടക്കുമ്പം നമ്മൾ ഭൂമിയിൽ ഏറ്റവും സുന്ദരമായ കാഴ്ചകളാണത് അതൊക്കെ എപ്പോഴെങ്കിലും നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് പോലെ തന്നെ നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമുക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടുക അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഒന്ന് ഫ്രീ ആവുക അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഞാൻ യാത്ര ഇഷ്ടപ്പെടുന്ന ആൾ ആയതുകൊണ്ട് തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ മൂന്നാർ പോവണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഒരു റിലാക്സേക്ഷൻ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ പോയത് അവിടുന്ന് ഉച്ച ഭക്ഷണത്തിനു പോയി അവിടുന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഞാൻ പറയട്ടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫുഡ് പോലെ ഈ മൂന്നാറൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ബിരിയാണിക്ക് ഒന്നും വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ നമുക്ക് ചിലപ്പോൾ പിടിക്കില്ലായിരിക്കും അപ്പോൾ ഞാൻ മൂന്നാർ പോയപ്പോൾ കഴിച്ചത് ബിരിയാണി ചിക്കൻ ബിരിയാണി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റെ കൂടെ വന്നവർക്കൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ബിരിയാണി ഒക്കെ പിന്നെ പിന്നെ ആണെങ്കിൽ എന്താണ് പറയുന്നത് ഒരു നാരങ്ങാ വെള്ളം കുടിച്ചു അതുകൊണ്ട് അവിടുന്ന് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ ആയിരുന്നു അവിടെ കണ്ടുകൊണ്ടിരുന്നത് ആ പിന്നെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് മനസ്സിന് സന്തോഷവും കുളിർമയും തന്നുകൊണ്ടിരുന്നൊരു ഇതായിരുന്നു എല്ലാവരും ഒരു വട്ടം എങ്കിലും മൂന്നാർ പോവണം പിന്നെ എന്താണ് പറയുക നല്ല രസം ആയിരുന്നു അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു വൈകുന്നേരം ഞങ്ങൾ ഇല്ലിക്കൽ കല്ല് എന്നൊരു സ്ഥലത്ത് പോയി അത് കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും ഉയർന്ന ഒരു കൊടുമുടിയാണ് അവിടെ പോയപ്പോൾ നമ്മൾ ഇങ്ങനെ മേഘത്തെ തൊട്ടു നിൽക്കുന്നത് മാതിരി ഒരു മല ഒരു കല്ല് ഭയങ്കര അത്ഭുതം നമുക്ക് തോന്നും നമ്മൾ ഇങ്ങനെ വലിഞ്ഞ് അതിൻ്റെ മണ്ടയ്ക്ക് കയറും കയറിക്കഴിഞ്ഞ് ഏറ്റവും മണ്ടയ്ക്കൊരു കല്ല് അതിൻ്റെ മണ്ടയ്ക്ക് ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാം അത് വഴി നോക്കുമ്പോൾ നമുക്ക് നല്ല നല്ല രസം നമ്മൾ കോട്ടയം ജില്ല മുഴുവൻ കാണുന്ന ഒരു ഇതായിരുന്നു മണ്ടയ്ക്ക് അപ്പം പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പക്ഷേ അവിടെ സൂക്ഷിക്കണം കേട്ടോ പോവുമ്പോൾ ഇവിടെ ഇടിമിന്നൽ ഏൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സുരക്ഷയോക്കെ കരുതി വേണം ആ വഴി പോകാൻ അപ്പം എല്ലാവരും ഒരു വട്ടം എങ്കിലും ആ സ്ഥലത്തേക്ക് പോവുക എന്ന് ഞാൻ പറയുന്നു